നല്ല വൈദ്യസഹായം ലഭിക്കുന്നതിന് ദാരിദ്ര്യം ഒരു തടസ്സം തന്നെയാണ് അതായത് ദരിദ്രമേഖലയിലുള്ളവർക്ക് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയും മെഡിസിൻ മരുന്ന് വാങ്ങാനോ അത് വലിയ വലിയ ഡോക്ടേഴ്സിനെ നേരിട്ട് പോയി കോൺടാക്ട് ചെയ്യാനൊന്നും സാധിക്കത്തില്ല അതായത് എത്രയാണെന്ന് രോഗം എന്ത് പറഞ്ഞാൽ രോഗം എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് പണമില്ലയെങ്കിലും പിന്നെ ഗഗവൺമെൻ്റ് ആശുപത്രിയിൽ പോകുന്നു അവിടെ നിന്ന് കുറയുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടുത്തെ അവിടുത്തെ ഡോക്ടറെ പോയി ആശ്രയിക്കുന്നു അവിടെ പോയി ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രോഗത്തിന് പെട്ടന്ന് ശമനം കിട്ടിയില്ലെങ്കിലും നമ്മൾ സാവധാനം പല പല ടെസ്റ്റുകളും പല പല ഇതുവായി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു പക്ഷേ ഗ്രാമങ്ങളിൽ ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്തു പോവാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും തോന്നുന്നില്ല പിന്നെ ദാരിദ്ര്യം ഇപ്പോഴത്തെ ഈ ഗവൺമെൻ്റിൻ്റെ ഒരു ചില ചില കണ്ടീഷനിൽ ചില മനുഷ്യർക്ക് കുറച്ചൊക്കെ മെയിൻ്റയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിലും കമ്പ്ലീറ്റ് ഒരു നല്ല രീതിയിൽ അവർക്ക് പൂർണ്ണ ഒരു വലിയ വൈദ്യ സഹായം ലഭിക്കുന്ന വയ്ക്കാൻ സാധ്യത കുറവാണ്